നിങ്ങളുടെ സമൂഹത്തിൽ നൃത്തം ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഏതെങ്കിലും പ്രതിയ അവസരങ്ങൾ ഉത്സവങ്ങൾ അല്ലെങ്കിൽ പരിപാടികൾ എന്നിവ ഉണ്ടോ ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ നമുക്ക് നൃത്തം ഒരു കലയാണല്ലോ ആ ഒരു കല നമുക്ക് ജന്മനാ കിട്ടുന്നൊരു കലയാണ് എൻ്റെ ഒരു സമൂഹത്തിൽ നൃത്തം ഒരു വലയൊരു കലയാണ് കാരണം ഞങ്ങളുടെ ഒരു സെൻ്റെറിലാണ് ഞങ്ങളെ ഒരു വീടിരിക്കുന്നത് അപ്പം ചുറ്റുവട്ടത്ത് പള്ളിയുണ്ട് അമ്പലമുണ്ട് അപ്പം ആ ഒരു കുറേ പരിപാടികൾ വരാറുണ്ട് ഉത്സവങ്ങൾ വരാറുണ്ട് ക്രിസ്മസാട്ടെ ഈസ്റ്ററാവട്ടെ അങ്ങനെ ഓരോ പരിപാടികൾ ഞങ്ങൾ പള്ളിയുടെ അവിടെ നടക്കുന്നുണ്ട് അമ്പലത്തിൽ നടക്കുന്നുണ്ട് അപ്പം ഈ നൃത്തം എന്നൊരു കല നൃത്തം എന്നൊരു കല വലിയൊരു സംഭവമായിട്ടാണ് ഞങ്ങളുടെ സമൂഹത്തിൽ അത് നിൽക്കുന്നത് കാരണം ഞങ്ങളുടെ സമൂഹത്തിൽ നൃത്തം എന്നൊരു മത്സരം തന്നെയുണ്ട് വർഷത്തിൽ ഒന്ന് നടത്തുന്ന നൃത്തമത്സരം അതിന് ഏകദേശം പതിനായിരം തൊട്ട് അമ്പതിനായിരം വരെ ക്യാഷ് പ്രൈസ് വരുന്ന ഒരു മത്സരമാണ് ഞങ്ങൾ സമൂഹത്തിൽ നടക്കുന്നത് കാരണം നൃത്തം ഒരു കലയായിട്ട് കൊണ്ട് നടക്കുന്ന കുറച്ച് ആൾക്കാരാണ് ഞങ്ങൾ സമൂഹത്തിലുള്ളത് കാരണം പണ്ട് തൊട്ടേ ഒരു പണ്ട് തൊട്ടേ ആ ഒരു രീതി ഫോളോ ചെയ്ത് വരുന്ന ഒരു കസ്റ്റമാണ് ഞങ്ങളുടെ സമൂഹത്തിലുള്ളത് അതുകൊണ്ട് നൃത്തം ഒരു വലിയൊരു സംഭവമാണ് കലയാണ് എന്ന് ചെയ്യുന്ന ആൾക്കാരുമുണ്ട് കാരണം നൃത്തം പഠിപ്പിക്കാൻ പലജാതി വേദികൾ പലജാതി സ്കൂളുകൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡാൻസിന് വേണ്ടിയുള്ള ഡിഗ്രി അങ്ങനെ പല രീതികളുണ്ട് അപ്പം നൃത്തം ഒരു കലയാണ് അപ്പം നൃത്തവേദികൾ കുറേ ഞങ്ങൾക്ക് നൽകുന്നുണ്ട് ഞങ്ങളുടെ സമൂഹത്തിൽ നൃത്തത്തിനായിട്ടുള്ള ക്ലാസ്സുകളുണ്ട് അതിനുള്ള ടീച്ചേഴ്സ് സാഹചര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാറുണ്ട് ഞങ്ങളുടെ സ്കൂളുകളിലാകട്ടെ നൃത്തം എന്നൊരു കല അതൊരു പീരിയഡ് ആക്കിത്തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്കൂളുകളിൽ ഞങ്ങൾക്ക് തരുന്നുണ്ട് അപ്പം നൃത്തം അത്രയും വളരെ അത്രയും പ്രാധാന്യം കാണുന്ന ഒരു സമൂഹത്തിലാണ് ഞാൻ ജീവിക്കുന്നത് പിന്നെ ഈ കലോത്സവത്തിനായിക്കോട്ടെയും അന്ന് ഉത്സവത്തിനായിക്കോട്ടെ പെരുന്നാളിനായിക്കോട്ടെ പരിപാടികാൾക്കായിക്കോട്ടെ എല്ലാത്തിനും നൃത്തം ഒരു നൃത്തമാണ് എല്ലാ പരിപാടികളുടെയും തുടക്കം നൃത്തമാണ് എല്ലാ പരിപാടികൾക്കൊരു നൃത്തം കണ്ട് ഇപ്പത്തന്നെ നമുക്ക് കണ്ട് പറയാവുന്നതാണ് കല്ല്യാണങ്ങൾക്കാണും നൃത്തമുണ്ട് നൃത്തത്തിലൂടെ പല കാര്യങ്ങൾ നമുക്ക് നേടാൻ സാധിക്കും ഇപ്പം നമുക്ക് കലോത്സവം നൃത്തം ആടി നല്ലൊരു പൊസിഷനിൽ എത്തി അപ്പം നമുക്ക് മുന്നോട്ടും പഠിത്തത്തിനും അല്ലെങ്കിൽ നമുക്ക് പോയിൻ്റ് കിട്ടാനും അല്ലെങ്കിൽ നമുക്ക് മാർക്ക് കിട്ടാനും നൃത്തം വളരെയധികം പ്രയോജനമാണ് നമ്മുടെ ജീവിതത്തിൽ അപ്പം നൃത്തം നമ്മൾ സാധാരണ ഒരു രീതിയിൽ തള്ളി മാറ്റാൻ പറ്റുന്ന ഒരു കലയല്ല നൃത്തം ഒരു കല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു കലയാണ് കാരണം അത് എല്ലാവർക്കും കിട്ടാ കിട്ടാൻ പറ്റാത്തൊരു കലയാണ് നൃത്തം അപ്പം അങ്ങനെ ഒരു കലയുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ആ ഒരു രീതീ നമ്മൾ ഫോളോ ചെയ്യുക കാരണം നമുക്കൊരു കലയുണ്ടെങ്കിൽ നമുക്ക് നൃത്തം എന്നൊരു കലയുണ്ടെങ്കിൽ നമ്മൾ വെറുതെ അതിനെ വെറുതെ അതിനെ മാറ്റരുത് നൃത്തം എന്ന് പറഞ്ഞൊരു വളരെ ഒരു പാടാണ് നൃത്തം എന്നൊരു കല നമുക്ക് കിട്ടാൻ അപ്പം അതിനനുസരിച്ചുള്ള മുന്നോട്ട് അത് അങ്ങനെ കൊണ്ടുപോവുക അതിനനുസരിച്ചുള്ള വേദികൾ നമ്മൾ നോക്കുക വേദികൾ അന്വേഷിക്കുക അതിനുള്ള ഇതെല്ലാം നോക്കുക അപ്പോൾ അതിന് വേണ്ടി നമ്മൾ മാക്സിമം പരിശ്രമിച്ച് നമ്മളൊരു നല്ലൊരു നൃത്ത്രാ അപ്പം നൃത്തം വളരെ ഒരു നല്ലൊരു കലയാണ്